ഒരു നീണ്ട ബൈക്ക് യാത്രയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയാ എന്താ പറയാ കുറച്ച് എന്താ പറയാ സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളൂ ഒരു നീണ്ട ബൈക്ക് യാത്രയ്ക്ക് ബൈക്കിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് വെച്ച് കെട്ടി കൊണ്ട് പോവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതായത് നമുക്ക് എന്താ പറയാ വെള്ളം കുപ്പി ഫുഡ് അതുപോലെ തന്നെ എന്താ പറയാ കുറച്ച് എന്താ പറയാ കുറച്ച് സാധനങ്ങൾ ഒക്കെ ആവശ്യമാണ് അപ്പമൊരു നീണ്ട യാത്രക്കാവുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കുക്കിംഗിന് വേണ്ടിയുള്ള സാധനങ്ങളും പ്രിപ്പറേഷൻ സാധനങ്ങൾ ഒക്കെ എടുത്താൽ അത് നല്ലത് ആണ് അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചിട്ട് കയറ് അതേ പോലെ തന്നെ ബാഗ് ഇതെല്ലാം ഒരു യാത്രയ്ക്ക് നല്ലത് ആണ്